തീർച്ചയായും പഴയ തലമുറക്കാർ തീർച്ചയായും ചെറുപ്പക്കാരെയൊക്കെ ഇപ്പോളുള്ള ചെറുപ്പക്കാരെക്കാൾ നല്ല രീതിയിൽ മത വിശ്വാസികളായിരിരുന്നു എന്ന് നമുക്ക് ഐക്യകണ്ഠേന പറയാൻ പറ്റും കാരണം അവർ അധ്വാനത്തിലൂടെയും സഹനങ്ങളിലൂടെയും ഒക്കെ ഭൂമിയിലും ഭൂമിയോട് മല്ലിട്ട് ജീവിച്ച് വന്നവരാണ് അവർ തീർച്ചയായും ദൈവവിശ്വാസികൾ തന്നെയായിരുന്നു എന്ത് കാര്യം ചെയ്യുമ്പളും അവൾ ദൈവത്തോട് പ്രാർത്ഥിച്ചതിന് ശേഷം ദൈവത്തെ കൂട്ട് പിടിച്ചുകൊണ്ട് മാത്രമേ പഴയ തലമുറക്കാർ എന്ത് കാര്യവും ചെയ്തിരുന്നുള്ളൂ തീർച്ചയായിട്ടും ആ ഒരു വിശ്വാസത്തെ നമുക്ക് നാം കണ്ണടച്ചുകൊണ്ട് നമ്മുക്ക് അവർക്ക് നല്ല വിശ്വാസത്തിൽ ജീവിച്ചവരാണ് നമുക്ക് ഉറക്കെ പ്രഖ്യാപിക്കാൻ സാധിക്കും ഇപ്പോൾ ഉള്ള ചെറുപ്പക്കാർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവർക്ക് യാതൊരുവിധ വിശ്വാസവുമില്ല കാരണം അവർക്ക് ഇപ്പം ഉള്ള വിശ്വാസം എന്ന് പറയുന്നത് മൊബൈല് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ലോകം ദൈവം അല്ല ദൈവമല്ല അവരുടെ പിന്നെ മുകളിലുള്ളത് അവരാണ് അവരെ നയിക്കുന്നതും മറ്റും കാര്യങ്ങളും ചെയ്യുന്നത് എന്നുള്ള ഒരു രീതിയിലാണ് ആ ചെറുപ്പക്കാരുടെ ഒരു പോക്ക് തീർച്ചയായും പഴയ തലമുറക്കാർ ചെറുപ്പക്കാരേക്കാൾ കൂടുതൽ മതവിശ്വാസികളായിരുന്നു എന്ന് നമ്മൾ തീർച്ചയായും നമുക്ക് ഉറക്കെ വിളിച്ച് പറയാൻ സാധിക്കും അതുകൊണ്ട് തീർച്ചയായും അവരുതന്നെയാണ് മതവിശ്വാസികളായിരുന്നു എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും